ഇത് സാഗർ ഹോട്ടലല്ലേ ആ എനിക്ക് ഇന്ന് വൈകുന്നേരത്തേക്കൊരു ഫങ്ക്ഷനുണ്ട് അപ്പം കുറച്ച് ഫുഡ് വേണം ഒരു ഫുൾ മന്തി രണ്ട് ഫുൾ മന്തി ബീഫ് മന്തിയും മട്ടൻ മന്തിയും വേണം പിന്നെ ഒരു ഇരുപത് പൊറോട്ടയും എ ഇരുപത് ചപ്പാത്തി പിന്നെ ബീഫ് കുറുമ ബീഫല്ല മട്ടൻ കുറുമ ബീഫ് റോസ്റ്റ് ചിക്കൻ കറി ഇത് രണ്ടും ഏഴുമണിക്കുള്ളിൽ ഞങ്ങൾക്ക് വേണമായിരുന്നു നിങ്ങൾ ഡെലിവറി ചെയ്യുകയാണെ ഞാൻ അഡ്രസ്സ് പറഞ്ഞ് തരാം ആ ഫാത്തിമ നസ്സീർ അറക്കൽ ഹൗസ് കുറ്റിക്കാട്ടൂർ പി ഒ കുന്നമംഗലം നിങ്ങളീ ഇപ്പം ഞാൻ വിളിക്കണ ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി പിന്നെ കുന്നമംഗൽ കുറ്റിക്കാട്ടൂരെത്തിയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ നിന്ന് കുറച്ചേയുള്ളു പറഞ്ഞ് വഴി പറഞ്ഞ് തരാം ഏഴുമണിക്കെത്തിക്കണം